കേരളത്തിലെ പിന്നെ കാർഷിക വ്യവസായ കാർഷിക മേഖലയെ ആ ഒരു വ്യവസായ രീതിയെ കേരളം നല്ല രീതിയിൽ പിന്താങ്ങുന്നുണ്ട് ഇല്ലാന്നല്ല അവർക്ക് വേണ്ട ധനസഹായം പിന്നെ ലോണുകള് മാർഗ്ഗ നിർദ്ദേശം അതായത് ഇപ്പം എന്തെങ്കിലും മാർഗ്ഗനിർദേശം വേണമെങ്കിൽ കൃഷിഭവനിൽ നിന്ന് നമുക്ക് നേരിട്ടിതാക്കാം പിന്നെ പറഞ്ഞുകൊടുക്കാൻ ആൾക്കാരുണ്ട് യൂട്യൂബുകളുണ്ട് ഇപ്പം കണ്ടില്ലേ പിന്നെ യൂട്യൂബുകൾ തന്നെയുണ്ട് കൃഷിയായിട്ട് മുന്നോട്ട്പോവുന്ന എത്രയോ യൂട്യൂബ് ആൾക്കാരുണ്ട് അവര് കൃഷിചെയ്യുന്ന മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുത്തുന്ന രീതിയില് എത്ര സ്ഥലത്ത് നമുക്ക് അങ്ങനെ കൃഷിചെയ്യാം എന്ന രീതിയിലൊക്കെ കൃഷിചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ വളർച്ച എന്നുപറഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ച ഓരോ കാലഘട്ടം എങ്ങനെ ചെയ്യണം എന്ത് വളം ചെയ്യണമെന്ന് നമുക്ക് സർക്കാരും പറഞ്ഞുതരുന്നുണ്ട് അങ്ങനെ അറിയാവുന്നവരും പറഞ്ഞുതരുന്നുണ്ട് നമുക്ക് കൃഷിഭവനുമായി ബന്ധപെട്ടാലും പറഞ്ഞുതരും പിന്നെ വേണ്ട വിത്തുകളും കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നുണ്ട് തൈകളും കൊടുക്കുന്നുണ്ട് അതായത് കൃഷി മുന്നോട്ട് വരണം ആ മുൻപന്തിയിൽ എത്തിക്കണം എല്ലാം രീതിയില് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്